നമ്മുടെ പ്രദേശത്ത് ഹിന്ദുക്കൾ മുസ്ലിം മുസ്ലിങ്ങൾ അധികം ഇല്ല ഹിന്ദുക്കൾ ഉണ്ട് ക്രിസ്ത്യാനികൾ ഉണ്ട് പിന്നെ നീയാ കൂറ്റ്കാർ അങ്ങനെ പല രീതിയിലുള്ള മതക്കാർ ഉണ്ട് അവർ എല്ലാവരും നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത് ഒത്തിരി വിഷയങ്ങൾ ഒന്നും അവർ ഉണ്ടാക്കാറില്ല എങ്കിലും നമ്മുടെ മതത്തിൻ്റെ പേരിൽ ഒക്കെ അവർക്ക് ഒത്തിരിയേറെ അസൂയകളുണ്ട് നമ്മുടെ കുട്ടികളെ അവർ ഒത്തിരിയേറെ വലിച്ചിഴച്ച് അവരുടെ മതത്തിലേക്ക് ചേർക്കാൻ ഒക്ക വേണ്ടി ഒത്തിരിയേറെ എന്ത് പണിപ്പെടുന്നുണ്ട് നമ്മുടെ കുട്ടികളെ അവർ വലിച്ച് അവർ ബന്ധത്തിലേക്ക് ആക്കി നമ്മുടെ കുട്ടികളെ അവർ വിവാഹം കഴിക്കാൻ ഒക്കെ ആയിട്ടവർ ഒത്തിരിയേറെ പ്രശ്നങ്ങൾ വരുത്തി ചേർക്കാറുണ്ട് മാധ്യമങ്ങൾ എത്ര മാത്രം സെൻസിറ്റീവാണ് എന്നുള്ള കാര്യം മാധ്യമങ്ങൾ നമ്മുടെ പ്രദേശത്ത് എന്തേലും കാര്യങ്ങൾ അറിഞ്ഞാൽ അവര് കുറേയൊക്കെ ഒന്ന് പറയോം കാണിക്ക്യും വാർത്തകളിലേക്കൂടെയൊക്കെ സംരക്ഷണം ചെയ്യ്വൊക്ക ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ പ്രദേശത്ത് ഒത്തിരിയേറെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളു എല്ലാം നടക്കാറുണ്ട് അത്ര മാത്രം ഓ ആ ഇതിൽ ഉള്ളൂ പിന്നെ വാർത്താ മാധ്യമങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ അടിമാലി മീഡിയാനെറ്റ് വാർത്ത അതെപ്പഴും തന്നെ കാണാറുണ്ട് നല്ല കാര്യങ്ങൾ അവർ ചീത്ത കാര്യങ്ങളാണേലും നല്ല കാര്യങ്ങളാണേലു എല്ലാവരും സംരക്ഷണമൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സമുദായത്തെ കുത്തി പറയുമ്പോൾ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അത് നമ്മുടെ മക്കളെയാണേൽ അവർ വലിച്ചിഴച്ച് കൊണ്ട് പോകുമ്പോൾ നമുക്ക് അത് ഒത്തിരിയും നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഇപ്പം ഒത്തിരിയേറെ കുട്ടികൾ ഒത്തിരിയേറെ മറ്റ് മതങ്ങളിലൂടെയൊക്കെ വിവാഹം കഴിച്ച് പോകുന്നവർ ഉണ്ട് അവരെയൊക്ക നമ്മൾ എത്ര പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇന്നത്തെ ഇന്നത്തെ ലോകം അങ്ങനെയാണ് നമ്മൾ കാർണമ്മാരൊന്നും പറഞ്ഞ് കൊട്ത്താലൊന്നും മക്കൾ മനസ്സിലാക്കുന്നില്ല ഓരോ കാര്യങ്ങൾ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവര്ക്കടെ അവർ ഒരു പുതിയ ലോകത്തിലേക്കാണ് പോകുന്നതെന്ന് ഉള്ള ചിന്തയാണ് നമ്മൾ ഏത് രീതിയിൽ പറഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർ കുട്ടികൾ അവരുടെ രീതിയിലവർ ജീവിക്കുന്നു അവർ പല ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു പല വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നു മദ്യപിക്കേണ്ടവർ മദ്യപിക്കുന്നു മയക്കുമരുന്ന് മയക്കുമരുന്ന് മാഫിയേലൊക്ക പെട്ട് ഒത്തിരിയേറെ വിഷയങ്ങൾ അവരുണ്ടാക്കുന്നു ഇന്ന് കൂടുതലും നമ്മുടെ നാട്ടിൽ നടക്കുന്നതും മദ്യത്തിൻ്റെ വിഷയമാണ് നമ്മുടെ കുഞ്ഞു ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്ക ഒത്തിരിയേറെ മദ്യം മയക്കുമരുന്നിനു ഒക്കെ അടിമയായി എന്ത് ചെയ്യണം എന്നറിയാതെ മാതാപിതാക്കൾ ഒത്തിരിയേറെ ദുഖിക്കുന്ന അവസ്ഥയാണ് അത് അതെന്ത് ചെയ്യണം എന്നിപ്പം എല്ലാവരും അതിന് വേണ്ടി പരിശ്രമിച്ച് കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ആണേലും പൊതു ജനങ്ങളാണേലും മാതാപിതാക്കളാണേലും സത്യം പറഞ്ഞാൽ ഇന്ന് മക്കളെ പുറത്ത് വിടാനേത് ഒരു ഓരോ മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ പേടി ഉണ്ട് അത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ കണ്ണിൽ കാണുന്നതല്ല അവർ പുറമെ പോയി ഒക്കെ കഴിയുമ്പോൾ അവർക്ക് ചീത്ത കൂട്ട്കാരും ചീത്ത കൂട്ട് കെട്ടിലും അകപ്പെട്ട് അവരുടെ ജീവിതം തന്നെ അവർ നഷ്ടപ്പെടുത്തുകയാണ് സമുദായത്തിൻ്റെ പേരിലും ഒക്കെ അവർ അടിയും പടയെല്ലാം കൂടി അവർ പല രീതിയിൽ അവരുടെ ലോകത്തേക്ക് അവർ മാറുവാണ് പിന്നെ മാതാപിതാക്കളെയോ ഒന്നവർ അവർ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന മാതാ കുട്ടികളാണ് എന്നുള്ള വിചാരം അവർക്ക് ഉണ്ടാകുകയില്ല അവരത് അവരങ്ങനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്